നമസ്ക്കാരം ഞാൻ വെള്ളപ്പൊക്കം മൂലം വിളനാശം സംഭവിച്ചതിന് ഇരയായ ഒരു കർഷകയാണ് അത് ആ എന്റെ പാവലും പയറും കീരയും എന്റെ വെണ്ടയും എന്റെ കത്തിരിക്കയും എന്റെ വാഴയും എല്ലാം നശിച്ചു പോയി മൊത്തം വെള്ളപ്പൊക്കം വന്ന് എന്റെ കൃഷി അത്രയും നശിച്ചു പോയി എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു പക്ഷെ ആ ഇൻഷുറൻസിന്റെ ക്ലെയിമിനെക്കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ തന്നെ വിളിക്കുകയോ എന്നോട് പറയുകയോ എന്നോട് അതിന്റെ കാര്യമൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ അറിഞ്ഞ് കാണുമല്ലൊ എന്റെ കൃഷിയെല്ലാം ഇത്രയും മഴയത്ത് എന്റെ കൃഷി അത്രയും നശിച്ചു പോയി നിങ്ങൾ വന്നു നോക്കിയാൽ ഇവിടെ കാണാം എന്റെ വാഴയെല്ലാം ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നത് കാണാം എന്റെ കീരയെല്ലാം ഒടിഞ്ഞു പോയി ഞാനിനി എങ്ങനെ ജീവിക്കും നിങ്ങൾ ഇൻഷുറൻസ് കൂടെ തരുമോ തരാതിരുന്നാൽ എങ്ങനെയാണ് ഞാൻ ജീവിക്കണത് എന്റെ ഇൻഷുറൻസ് ക്ലെയിം നമ്പർ ഒന്ന് പൂജ്യം നാല് എട്ട് ആറ് ഒമ്പത് ഏഴ് മൂന്ന് രണ്ട് ഒന്ന് ആറ് എട്ട് അഞ്ച് ഈ ഇൻഷുറൻസ് ക്ലെയിമിലാണ് ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഇത് തരാതിരുന്നാൽ എനിക്ക് ജീവിക്കാനൊരു നിവൃത്തിയില്ല ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് ക്ലെയിമിന്റെ പൈസ ഞാൻ അടച്ച പൈസയല്ലെ ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇൻഷുറൻസ് എടുത്ത് അടച്ചിട്ടല്ലയൊ ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ആ പൈസ അത്രയും നിങ്ങൾ എത്രയും പെട്ടെന്ന് എനിക്ക് തരണം കാര്യം എനിക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ഈ വെള്ളം തോരാതെ ഞാനെങ്ങനെ ഇനി ഇവിടെ കൃഷി നടത്തും കൃഷിയാണ് എന്റെ കുടുംബത്തിന്റെ ഏക വരുമാനം അപ്പോൾ ആ വരുമാനം ഇല്ലാതായാൽപ്പിന്നെ എങ്ങനെയാണ് ഞാൻ ജീവിക്കണത് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ ക്ലെയ്മിനെ എനിക്ക് വേണ്ട പരിഹാരം നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എന്നോട് സംസാരിച്ചിട്ടില്ല പക്ഷേ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലായെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്നാണ് ഞാൻ ഈമെയില് വഴി അപേഷിക്കുന്നത് നിങ്ങളെനിക്ക് എനിക്ക് ആ പഠിത്തവും വിവരവുമൊന്നുമില്ല ഞാൻ പത്താം ക്ലാസ്സ് തോറ്റതാണ് പിന്നെ ഞാൻ എങ്ങനെ എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനൊന്നും ആരുമില്ല അപ്പോൾ നിങ്ങൾ എന്റെ ഇൻഷുറൻസ് എന്തായി നിങ്ങൾ ചെയ്തു തുടങ്ങിയൊ നിങ്ങൾ ചെയ്ത് എന്തായി അതിന്റെ പ്രോസസ്സ് എന്തെങ്കിലും ആയൊ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഇതൊന്നും അറിയാതെ ഞാനിവിടെ എനിക്ക് പിള്ളാരേയൊക്കെ നോക്കാനുണ്ട് എന്റെ പശു ഇപ്പോൾ പാൽ വിറ്റാണ് ഞാൻ ജീവിക്കുന്നത് അതല്ലാതെ ഒരു നിവൃത്തിയും എനിക്കില്ല അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഇൻഷുറൻസ് പൈസ എത്ര പൈസയാണൊ ഞാൻ അടച്ച പൈസയല്ലായൊ ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നാൽ എന്താ ഇപ്പം നിങ്ങൾ തന്നില്ലെങ്കിൽപ്പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പം തരാനാണ് ഇരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ ഇൻഷുറൻസ് ക്ലെയിമിന്റെ പൈസ നിങ്ങൾ അയച്ചു തരണം എന്ന് ഞാൻ അഭ്യർഥിക്കുന്നു എനിക്ക് ഇനി പയറും കീരയും വെണ്ടയും എല്ലാം ഇനി ഒന്നിൽ നിന്ന് നട്ട് മുളപ്പിച്ച് അത് കായ്ച്ച് അത് വിറ്റ് വേണം എനിക്ക് ജീവിക്കാൻ അതേ എന്റെ ഉപജീവനമാർഗ്ഗം ഉള്ളു ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ പത്താം ക്ലാസ്സ് ഞാൻ പറഞ്ഞല്ലൊ ഞാൻ പത്താം ക്ലാസ്സ് തോറ്റതാണെന്ന് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് വേണ്ട നടപടിയെടുത്ത് തരണം എന്ന് ഞാൻ ഈമെയില് വഴി അപേക്ഷിക്കുന്നു നന്ദി